നല്ലൊരു പെരുമാറ്റമായിരുന്നു ഡ്രൈവറുടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ സിറ്റിയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ മേജർ സിറ്റീസും മേജർ ആയിട്ടുള്ള ബസ് സ്റ്റോപ്സും ലൊക്കേഷൻസ് ഒക്കെ പറഞ്ഞ് തന്നു ഇപ്പോഴത്തെക്കാലത്ത് ഇങ്ങനെ ഒക്കെ ഡ്രൈവർ ഇങ്ങനെ നല്ല രീതിക്ക് പെരുമാറുന്ന ഡ്രൈവറെ കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഏജൻസി കാരണം നല്ല ഡ്രൈവറിനെ എനിക്ക് തന്നു സോ ഹാപ്പി പിന്നെ നല്ല രീതിക്ക് റേറ്റ് ഒന്നും അധികം ഇല്ലാണ്ട് തന്നെ കറക്റ്റ് സമയത്ത് തന്നെ എത്തിച്ചു ഒരു തേർട്ടി മിനിറ്റ്സിൻ്റെ ഡ്രൈവ് ആണ് ഉണ്ടായത് സോ എതായാലും നല്ല രീതിക്ക് എനിക്ക് എത്താൻ പറ്റി ഭയങ്കര റഷ് അല്ലെങ്കിൽ നല്ല നല്ല രീതിക്ക് പോയിരുന്നു ഇപ്പോഴത്തെകാലത്ത് ഇങ്ങനെ ലൈക്ക് നല്ല രീതിക്ക് പെരുമാറുന്ന ആൾക്കാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കത് കിട്ടി നല്ല രീതിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ആണ് എനിക്ക് പറയാനുള്ളത് എല്ലാ സ്ഥലങ്ങളും എനിക്ക് പരിചയപ്പെടുത്തിത്തന്നു ഇന്ന സ്ഥലങ്ങളാണ് ഇവിടെ നിന്നാലാണ് ബസ് കിട്ടുക ഇന്ന സ്ഥലത്ത് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് മെട്രോ സ്റ്റേഷൻസും ഒക്കെ പറഞ്ഞ് തന്നു എല്ലാ മെയിൻ സിറ്റീസും എനിക്ക് പിന്നൊരു ഇൻ്റർവ്യൂ കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈം എന്ന് പറയുന്നത് എനിക്ക് വളരെ അർജൻറ് ആയിരുന്നു സോ കറക്റ്റ് ടൈമിൽ എനിക്ക് എത്താൻ പറ്റി നല്ല നല്ലൊരു ഡ്രൈവ് തന്നെയായിരുന്നു അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റി പിന്നെ മെയിൻ സിറ്റീസ് ഒക്കെ പറഞ്ഞ് തന്നു പിന്നെ അധികം ചാർജ് ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായില്ല കറക്റ്റ് സമയത്ത് തന്നെ എത്തി ഒരു ത്രീ തേ ഫിഫ്റ്റി ഫൈവ് ഒക്കെ ആയപ്പോഴത്തേക്കും എത്തി പിന്നെ ആ ഒരു ത്രീ ഫോ ഫോർ ഫോർട്ടി ഫൈവ് ആയിരിക്കും ഞാൻ അവിടെ എത്തിയപ്പോൾ നല്ല രീതിക്ക് ലൈക്ക് ഒരു അധികം ഡ്രൈവ് ഒന്ന് ലൈക്ക് ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ ലൈക്ക് നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റി സംസാരിക്കുമ്പോഴായാലും പെരുമാറുമ്പോഴായാലും നല്ലൊരു ഇതായിരുന്നു നല്ലൊരു ഫീഡ്ബാക്ക് ആണ് ഒരു എനിക്ക് ലൈക്ക് ആളുടെ കൂടെ ഡ്രൈവ് ചെയ്തപ്പോൾ ലൈക്ക് ഒരു പുതു സിറ്റിയാണെന്ന് എനിക്ക് തോന്നിയില്ല ലൈക്ക് അത്രയും നല്ല രീതിയിള് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതന്നു വെരി ഹാപ്പി നല്ലൊരു ഇതായിരുന്നു നല്ലൊരു ഡ്രൈവ് ആയിരുന്നു ഇനി നിങ്ങളുടെ സേവനം ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് അധികം ബൈ ചാർജസ് ഒന്നുമല്ല ഇനി ഇങ്ങനെയുള്ള ഡ്രൈവേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയുകയാണ് ലൈക്ക് നല്ലൊരു ഇത് എന്നൊക്കെ പറ നല്ലൊരു ഇതാണ് സോ വെരി ഹാപ്പി ഇങ്ങനെ ഒരിത് തന്നതിൽ നിങ്ങളുടെ ഏജൻസി തന്നതിന് ഇനി ലൈക്ക് ആഗ്രഹിക്കുന്നു ഇതിൽ നല്ല രീതിക്ക് വേണമെന്ന് ഞാൻ പറയുകയാണ്